ഇത് നീതി വെജിറ്റബിൾ ഷോപ്പല്ലേ ആ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വിളിക്കാണ് ഇന്ന് ആ തിരുവനന്തപുരത്തു നിന്ന് വിളിക്കുക ആണ് എൻ്റെ സിസ്റ്റർ മാര്യേജ് ആണ് അടുത്ത മാസം പത്താം തീയതി അപ്പോൾ എനിക്ക് ആ നിങ്ങളെ ഷോപ്പിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് വേണമായിരുന്നു കല്ല്യാണ ആവശ്യത്തിനായിട്ട് അതായത് ഞങ്ങൾക്ക് മൂന്ന് ദിവസത്ത പരിപാടി ആണ് കല്ല്യാണത്തിൻ്റേത് ഇപ്പോൾ തലേ ദിവസത്തെതും കല്ല്യാണ ദിവസവും അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസത്ത സൽക്കാരത്തിന് ആയിട്ട് ഉള്ളത് മൂന്ന് ദിവസത്ത ഇതാണ് വരുന്നത് അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂരാണ് കണ്ണൂർ തലശ്ശേരിയിലാണ് വരുന്നത് ഇപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ എങ്ങനെ ഒക്കെ പച്ചക്കറികൾ ഉണ്ടാവുക എത്രക്ക് എത്രക്ക് തരാൻ പറ്റുമെന്ന് ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരാമോ ഏതൊക്കെ പച്ച പച്ചക്കറികളാണ് ഉള്ളത് എന്ന് ഉള്ളത് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് ആക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വെജിറ്റബിൾ ഷോപ്പിലുള്ള ഏതൊക്കെ പച്ചക്കറികളാണ് ഉള്ളത് അതിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് എനിക്ക് ഇതിലെ വാട്ട്സ്ആപ്പിലേക്ക് ഒന്ന് ലിസ്റ്റും അതായത് പച്ചക്കറിയുടെ പേരും അതു പോലെ തന്നെ അതിന് കിലോന് എത്ര രൂപയാണ് ഉള്ളത് ഉള്ളത് എനിക്ക് ആ പിന്നെ അത് അത് അങ്ങനെ ഉള്ള ഒരു സ്ലിപ്പാണ് ആക്ച്വലി ഉള്ളത് പച്ചക്കറിയുടെ ലിസ്റ്റ് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എത്രയാണ് ഉള്ളത് പിന്നെ എത്ര വേണമെന്ന് ഉള്ളത് ഞാൻ പറഞ്ഞ് തരാം പിന്നെ നിങ്ങളിത് പിന്നെ അതാത് ദിവസത്ത പച്ചക്കറികളാണോ മാഡം അതാത് ദിവസം കൊണ്ടേരാണോ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നിങ്ങളിത് പിന്നെ ഒരുമിച്ച് ഒരു പ്രാവശ്യം ആയിട്ട് ആണോ കൊണ്ട് വരുക ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആ പറയൂ അതായത് ഞങ്ങൾക്ക് പിന്നെ മൂന്ന് ദിവസത്തേതും കൂടിയിട്ട് ആ നിങ്ങളെ അതായത് നിങ്ങളെ ഡെലിവറി ചാർജ് ഉണ്ടോ അതായത് നിങ്ങൾ പച്ചക്കറി കൊണ്ടു വന്നതിൻ്റെ വാനിന് ഒക്കെ ചാർജ് ഉണ്ടോ

ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ എൻ്റെ പിന്നെ പച്ചക്കറി ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ എനിക്ക് എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞ് തരാം ആദ്യം നിങ്ങൾ നിങ്ങളെ മെനു ഒന്ന് ഇങ്ങോട്ടേക്ക് ലിസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് അയച്ച് തരുമോ എന്നിട്ട് പറഞ്ഞ് തരാം ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് അയക്കുക എന്നിട്ട് എത്ര വേണമെന്ന് ഉള്ളത് ഞാൻ പറഞ്ഞ് തരാം എനിക്ക് പിന്നെ അതാത് ദിവസത്തെ വേണമെന്ന് ഇല്ല നിങ്ങൾ മൂന്ന് ദിവസത്തെയും കൂടിയിട്ട് ഒന്നിച്ചിട്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കൊടുത്ത് വിട്ടാൽ മതി അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം തന്നെ കിട്ടിയാലും കുഴപ്പമില്ല ഓക്കെ ദിവസവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വാട്ട്സ്ആപ്പിൽ ഡീറ്റെയിൽസ് എല്ലാം കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞ് തരാം ഓക്കെ ശരി താങ്ക് യു